ഇപ്പോൾ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുമുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പണ്ടു കാലത്തെ വച്ചിട്ട് ഇപ്പോൾ നമ്മൾക്ക് പെട്ടന്നൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയണം എന്നു പറഞ്ഞാൽ ആദ്യം പറയുന്നത് മൊബൈലായിരിക്കും ഇപ്പോൾ നമ്മുടെ മൊബൈലിൽക്കൂടി ചെയ്യാത്ത പരിപാടികളില്ല എന്തായിപ്പോൾ ഒരാൾക്ക് പൈസ അയച്ച് കൊടുക്കുക എത്ര ദൂരത്തുള്ള ആൾക്കാരേയും വേണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം നമുക്കൊരു സാധനം ഓർഡർ ചെ യ്യാം ഇപ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്നിട്ടുതന്നെ ഡ്രസ്സാണെങ്കിലും പൈപ്പ് അതുപോലെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഓർഡർ ചെയ്യാം പിന്നെ മൊബൈൽ ഫോൺ വേറെ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യാം ബൈക്ക് കാറ് പിന്നെ അതുപോലെ എന്ത് സാധനം എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ നായക്കുട്ടി വേണമെങ്കിൽ നായക്കുട്ടി അങ്ങനെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും മൊബൈലിൽ കൂടിയൊക്കെ ചെയ്യാൻ പറ്റും ബാങ്ക് അക്കൌണ്ട് തുറക്കുക ബാങ്കിൽ നിന്ന് പൈസ അയക്കുക അങ്ങനെ സർവ്വ സാധനങ്ങളും നമുക്കിപ്പോൾ സാങ്കേതിക നമ്മുടെ മൊബൈല് പറയുന്ന ആ സയിറ്റും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ടെക്നോളജി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വിദ് സാങ്കേതികവിദ്യ അതിലിപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളെ വിദ്യാർത്ഥികളെ നോക്കുകയാണെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ കാലം ബെസ്റ്റാണ് നമ്മള് പണ്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർ അവർക്കെന്താ സുവർണ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി കാലഘട്ടമാണ് എന്തു കൊണ്ടും അവർക്ക് നല്ല ഒരു കാലഘട്ടമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡൗട്ടുണ്ടെങ്കിലും അവർക്ക് ജസ്റ്റൊന്ന് ഈ നമ്മളാ നെറ്റ് ഓപ്പണാക്കിയിട്ട് ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ മതി എന്തിനെക്കുറിച്ചുള്ള ഡൗട്ടാണെങ്കിലും അതിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാവണ രീതിയിൽ എന്തെങ്കിലുമൊരു ടോപ്പിക്ക് ആ ഗൂഗിളിൽ ഉണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിലിപ്പോൾ കുറേ ആൾക്കാര് ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് അവര് അതിൽ കുറേ പേര് എന്തിനെക്കുറിച്ചിട്ട് വേണമെങ്കിലും ക്ലാസെടുക്കാൻ പറ്റണ ആൾക്കാര് ഇപ്പോൾ നമ്മുടെ ലോകത്തുണ്ട് അപ്പോൾ അവര് അതിനെക്കുറിച്ച് ക്ലാസെടുത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കെന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു ചെറുതാണോ വലുതോ ഏത് ക്ലാസാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മറ്റേ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്ലസ് ടുവിന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും എങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്കും ഡൗട്ട് നോക്കാനാണ് ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിനുള്ള അവർക്ക് ആവശ്യ ആവശ്യമായിട്ട് ഇപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്ക അതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടന്നിപ്പോൾ അവർക്ക് അവരുടെ ഇപ്പോൾ എന്താ പറയുക അവർക്ക് കറക്റ്റ് ടൈമാണ് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് ക്ലാസ് പോവണമെന്നോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി മനസ്സിലായില്ല എന്നോ വേറേ പണ്ടുള്ള പോലെ ട്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പോൾ എല്ലാം ഈ മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് കാര്യങ്ങള് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേറൊരു ഇപ്പോൾ നമുക്ക് സാങ്കേതികവിദ്യ വച്ചിട്ട് വേറെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക് ഇപ്പോൾ ഇതാണ് പറഞ്ഞാൽ ആർടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് കൃത്രിമബുദ്ധി അത് ഇപ്പോൾ ഇനി ഈ അടുത്ത ഒരു നാലഞ്ചു കൊല്ലത്തിനുള്ളിൽ നല്ല അതിൻ്റെ ഒരു മാറ്റം കൂടി നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ ജീവിത രീതിയും മെച്ചപ്പെടും ഇപ്പോൾ നമുക്കു കയറി സ്വിച്ചിടാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മള് വേറൊരാളെ വിളിക്കാൻ ഒക്കെ നമുക്ക് ഇരുന്നിടത്ത് ഇരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മള് ആലോചിക്കണ ആ ഒരു കഴിവുകൊണ്ടുതന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് കണ്ട്രോൾ ചെയ്തിട്ട് കാർ ഓടിക്കണ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ടെക്നോളജികളും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഈ സാങ്കേതികവിദ്യ നമുക്ക് നമ്മുടെ മനുഷ്യന് മനുഷ്യൻ്റെ ഒരുപാട് ജോലികള് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരുപാട് ആവശ്യങ്ങള് എത്ര എളുപ്പം ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പം ആ അത്രയും എളുപ്പത്തിൽ കാര്യങ്ങള് ചെയ്യിക്കാൻ പറ്റും അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സാങ്കേതിക വിദ്യയില് കൂടുതൽ താല്പര്യമുണ്ടായത്